ബൈക്കിൽ സഞ്ചരിക്കുന്നവർ ബൈക്ക് പൊതുവേ നാലു ചക്ര വാഹനങ്ങളെക്കാളും സുരക്ഷ പൊതുവെ കുറവാണ് ഇരുചക്ര വാഹനങ്ങൾക്ക് ചില പ്രതലങ്ങളിൽക്കൂടി ടു വീലർ ഓടിക്കുകയെന്നുള്ളത് അതീവ പ്രയാസകരമാണ് അങ്ങനൊരു അനുഭവത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പഠിക്കുന്നത് കുട്ടിക്കാനം പീരുമേട് എന്നു പറഞ്ഞ സ്ഥലത്താണ് അവിടെ ഉറുമ്പിക്കര എന്നൊരു ഒരു വിനോദസഞ്ചാര സ്ഥലമുണ്ട് ഈ ഉറുമ്പിക്കരയിലേക്കുള്ള പാത അതീവ ദുഷ്കരവും വളരെ അധികം പ്രയാസങ്ങൾ നേരിട്ട വഴിയുമാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്തെന്നാൽ ബൈക്ക് വളരെ അധികം ബുദ്ധിമുട്ടാണ് അതിലേ കൂടെ കൈകാര്യം ചെയ്യാനും ഓടിച്ചു കൊണ്ടുപോകാനും എന്നുള്ളത് ഒരു ഫോർ ഇൻ്റു ഫോർ അഥവാ ഒരു ട്രക്ക് അല്ലെങ്കിൽ അഥവാ ഒരു പിക്കപ്പ് ഒരു ജീപ്പ് കയറി പോവുന്ന വഴികളാണ് ഇവ ആ അതുകൊണ്ട് തന്നെയും റോഡില്ലാത്ത വഴികളിലൂടെ ടു വീലറിൽ സഞ്ചരിക്കുന്നത് അൽപ്പം പ്രയാസം നിറഞ്ഞതാണ് അതിൽ നമ്മളേറ്റവും കൂടുതൽ നേരിടാൻ പോവുന്ന വെല്ലുവിളികൾ എന്നു പറഞ്ഞത് വണ്ടി തെന്നി പുറകിലേക്ക് വരാം ടയറിന് ഗ്രിപ്പില്ലെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ തെന്നി വീഴാം അല്ലെന്നുണ്ടെങ്കിൽ അല്ലന്നുണ്ടെങ്കിൽ വീഴാനും പല തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്